കോഴിക്കോട് ജില്ലയിലെ ഇപ്പോളുള്ള കാലാവസ്ഥയെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മഴയാണ് സമയം കാരണമെന്താണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒക്ടോബർ നവംബർ ഒക്ടോബർ സെപ്റ്റംബർ ഈ മാസമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ചൂടും കാര്യങ്ങളൊക്കെയാണ് വരേണ്ടത് സെപ്റ്റംബറിൽ ഒരു പകുതി വരെയൊക്കെയാണ് മഴയുണ്ടാവുക ബാക്കിയങ്ങോട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പക്ഷെ ഇപ്പം നല്ല രീതിയിലുള്ളൊരു മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കാരണം കഴിഞ്ഞൊരുമാസം നമുക്ക് മഴയും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം വെള്ളം കിട്ടാണ്ടായി വെള്ളം ലഭ്യത കുറഞ്ഞു അങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു മഴയും കാര്യങ്ങളൊക്കെ നമുക്ക് കോഴിക്കോട് ജില്ലയിലും നമ്മുടെ കേരളത്തിലൊട്ടാകെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ളൊരു മഴയാണ് ഇപ്പോൾ ഉള്ളതെന്നു വേണമെങ്കിൽ പറയാം ഇപ്പോൾ വലിയ രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടിട്ടുണ്ട് കാരണം ഇപ്പം ഒരു കുറഞ്ഞൊരു താപനിലയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാലു ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്കിപ്പം കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജൂൺ ആദ്യമേ ഒക്കെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മഴ ലഭിക്കേണ്ടൊരു കാലഘട്ടമായിരുന്നു പക്ഷെ ഇപ്പോളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഴയും കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല ശരിക്കും ജൂൺ ആദ്യ ആഴ്ചയിൽ തന്നെ നമുക്ക് മഴ ലഭിച്ച് സെപ്തംബർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവേണ്ടത് പക്ഷെ ഇതിനിടക്ക് ചില സമയങ്ങളിലൊന്നും നമുക്ക് നമുക്ക് മഴയും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്